ആയോധന കലകളിലേക്ക് ഇറങ്ങുമ്പോൾ പ്രധാനമായും നോക്കണ്ട കാര്യമാണ് നമ്മളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം മാനസികമായി പ്രിപ്പെറാവാണ്ട് ഒരു കാരണവശാലും ആയോധന കലകളിലേക്ക് ഇറങ്ങാൻ പാടില്ല അതായത് കളരി കരാട്ടെ കുൻഫു അങ്ങനത്തെ ഒരു ആയോധന കലകളിലേക്കും ശാരീരികവും മാനസികവുമായി പൊരുത്തപ്പെടാതെ ഇറങ്ങാൻ പാടില്ല ശാരീരികം എന്ന് പറയുമ്പോൾ ഒരു രോഗങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ വേണം ആയോധന കലകളിലേക്ക് ഇറങ്ങാൻ അത് ശ്രദ്ധിച്ചിട്ട് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് വരും നമ്മൾ മാനസികമായും നല്ലോണം പ്രിപ്പെർ ചെയ്തിട്ട് വേണം ആയോധന കലകളിലേക്ക് ഇറങ്ങാൻ കാരണം ഒരുപാട് അപകടങ്ങൾ സംഭവിക്കാനും ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാനൊക്കെ ഉണ്ട് ഇപ്പം നമ്മൾ ശാരീരികവും മാനസികവുമായിട്ട് ഒരുപാട് കഴിവ് പരിശ്രമിച്ചിട്ട് വേണം നമ്മൾ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടീട്ട് നമ്മൾ ആരോഗ്യത്തെയും മാനസികവുമായിട്ടും ഭയങ്കരമായിട്ട് ബാധിക്കും ഈ ആയോധന കലകൾ അതുകൊണ്ട് നമ്മൾ ശാരീരികവും മാനസികവുമായിട്ട് പൊരുത്തപ്പെട്ടതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഇറങ്ങാൻ പാടുള്ളു